ആരാധനക്ക് നമ്മള് കൂടുതലായിട്ടും അനുഷ്ഠാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു ജാതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും അമ്പലങ്ങള് പ്രാർത്ഥന അങ്ങനെ കൊണ്ടുനടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉള്ള സ്ഥലങ്ങളാണ് അപ്പം ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡെയിലി രാവിലെ ഒരു നാലു മണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിലും കാര്യങ്ങൾക്ക് ഒക്കെ പോയി ഭജന ഇരിക്കാര് പിന്നെ എന്തെങ്കിലും ശ്ലോഖങ്ങൾ ചൊല്ലുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലും ജപിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്ന അവർക്ക് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ടുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുമുണ്ട് നമ്മളെ പോലുള്ളവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ വല്ലപ്പോഴും അമ്പലത്തിൽ പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വലിയ രീതിയിൽ ഒന്നും കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഈ ആചരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ ആണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള അവര് ഇപ്പം ഡെയിലി വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുക അവർക്ക് ആ വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അവരുടെ എന്തോ ഇത് എന്താ പറയുക അവരുടെ ഒരു മത പ്രകാരം എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ കുടുംബത്തിലും കാര്യങ്ങൾക്കൊക്കെ നേരി നേരിടേണ്ടി വരും അപ്പം അവരും ഡെയിലി എന്താ പറയുക അപ്പം എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഞായറാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പല രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങള് നമ്മുടെ നാട്ടില് നടക്കുന്നുണ്ട്